വസ്ത്രങ്ങൾ കഴുകാൻ നനകല്ലും വാഷിങ് മെഷീനുമുപയോഗിക്കാറുണ്ട് മഴക്കാലത്താണെങ്കിൽ നനകല്ലുപയോഗിക്കുന്നതു വളരെ ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്തതു മാത്രമാണ് കൂടുതൽ നനകല്ല് നനകല്ല് ഉപയോഗിക്കാനും പക്ഷെ അതിന്ന് ഉണക്കിയെടുക്കാനൊക്കെ സൗകര്യം അതു തന്നെയാണ് പക്ഷേ മഴക്കാലത്താണെങ്കിൽ വാഷിങ് മെഷീനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണക്കിയെടുക്കാൻ വളരെ കുറച്ചു സൗകര്യമുണ്ട് കാരണം അതിൽ പ പകുതി ഉണങ്ങി കിട്ടുന്ന സംവിധാനം വരെ അതിനകത്ത് ഓട്ടോമാറ്റിക്ക് ഉണ്ട് പക്ഷെ വെള്ളം കൂടുതൽ ചിലവു ഞാൻ നോക്കിയാൽ വാഷിങ് മെഷീനിലാണ് മറ്റെ നമുക്കൊരു ബക്കറ്റ് എടുത്തു വെച്ചാൽ ആവശ്യത്തിനു വെള്ളം ഉപയോഗിച്ചു വസ്ത്രങ്ങൾ കഴുകിയെടുത്തു പിഴിഞ്ഞ് ഉണക്കാനൊക്കെക്കൊണ്ട് കഴിയും മഴക്കാലമാണേൽ വീട്ടിനകത്ത് അ അശകൾ കെട്ടി അവിടെ ഉണക്കിയെടുക്കും മ മഴ ഇല്ലാത്ത സമയത്തു പുറത്തു അശകെട്ടി അവിടെ നിന്ന് ഉണക്കിയെടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ദ വെള്ളം അന അനാവശ്യമായിട്ടു പാഴാക്കാതെ തന്നെ നനക്കാം കൊച്ചുന്നാൾ ഞാൻ ആറ്റുവക്കത്ത് ചെന്നിരുന്നാണ് വസ്ത്രങ്ങൽ കഴുകിക്കൊണ്ടിരുന്നത് എന്റെ വീട്ടിൽ നിന്ന് അകത്തുള്ള ഒരിടത്ത് മ മ ആറ്റിങ്കരയിൽ ധാരാളം കല്ലുകളുണ്ട് അവിടിരുന്ന് വെള്ളത്തിന്റെ യാതൊരു വെള്ളം പോലും നമുക്ക് പാഴാക്കേണ്ടാവശ്യമില്ല ആറ്റിൽ മുക്കുന്നു വെള്ളം ന എടുക്കുന്നു നനക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നു ഇപ്പം ഇതൊക്കെ മാറി നമ്മളെല്ലാം ഒക്കെ എല്ലാ വസ്ത്രങ്ങളും കഴുകുന്നത് വീട്ടിലാക്കി മാറ്റിക്കഴിഞ്ഞു കാരണം നമ്മള് കുളിക്കാനൊ കൊണ്ട് കൊളങ്ങയൊ പുഴയൊ ഉപയോഗിക്കുന്ന കാലങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ വസ്ത്രങ്ങൾ കഴുകുകയും എടുക്കുന്നതിനു ശരിക്കും എടുക്കുകയാണെങ്കിൽ നമ്മളത് നനച്ചെടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറയുകയും അതിനി വാഷിങ് മെഷീനാണെങ്കിൽ അതിനു പ്രത്യേക അളവുണ്ട് അത്രയും അളവിൽ വെള്ളം കയറിയാൽ മാത്രമേ അത് നനയ്ക്കെയും അത് പിഴിഞ്ഞെടുക്കുകയും ചെയ്കയുള്ളു